ഞാൻ ഓടാൻ പോയിരുന്നത് ഒരു റിട്ടയേർഡ് ആർമിക്കാരൻ്റെ കൂടെയായിരുന്നു പുള്ളി എപ്പഴും ഇങ്ങനെ ഓരോ തമാശകൾ ഒക്കെ പറയും പുള്ളിക്ക് ഇങ്ങനെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഓരോ അനുഭവങ്ങളൊക്കെ പറഞ്ഞു ഓരോ തമാശകൾ ഒക്കെ പറഞ്ഞു എപ്പഴും ഞങ്ങളെ ചിരിപ്പിക്കും ആയിരുന്നു അതുപോലെത്തന്നെ ഞങ്ങൾ ഓടുന്ന സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ പുറകു വശത്ത് നല്ലപോലെ ബാക്കിൽ ആയി പറഞ്ഞാൽ അവരെന്താടാ കാണിക്കുന്നത് നീയൊക്കെ എന്തിനാ ഓടാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ തമാശ ഒക്കെ പറയും പിന്നെ വൈകീട്ട് അൽഫാം കഴിക്കാൻ പോകും കുഴിമന്തി കഴിക്കാൻ പോവുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ തമാശകൾ ഇടയ്ക്ക് പറയും അതുപോലെ നമ്മൾ ഓടി വന്നതും എല്ലാവരും അമ്പത് പുഷ്അപ്പ് എടുത്തിട്ട് എണീച്ചാൽ മതി പറയും അങ്ങനെ ഓടി വന്നാൽ നേരെ ബെൻഡ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ പറയും എന്നിട്ട് അമ്പത് പുഷ്അപ്പ് എടുത്തിട്ട് എണീച്ചാൽ മതി പറയും അപ്പോൾ എല്ലാവരെയും കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എടുക്കാൻ പറ്റാത്തവരെ കൊണ്ട് ഇങ്ങനെ പറയും നീയൊക്കെ എന്തിനാ ഓടാൻ വരുന്നത് വൈകുന്നേരം അൽഫാമും മന്തി ഒക്കെ കഴിച്ചിട്ടാണ് എടുക്കാൻ പറ്റാത്തത് വയറ്റിലെ പിത്തം ഒക്കെ പോട്ടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഓരോ തമാശ എപ്പഴും പറഞ്ഞു കൊണ്ടിരിക്കും ഭയങ്കര രസമായിരുന്നു അതൊക്കെ